കഴിഞ്ഞ ഒരു വർഷത്തിനിടെ എനിക്ക് ഉണ്ടായ ഒരു അവിസ്മരണീയ സംഭവം പറഞ്ഞാൽ ഞങ്ങളും പഠിച്ചിറങ്ങിയ കൂട്ടുകാരുടെ എല്ലാം കൂടി ഒരു റീയൂണിയൻ നടന്നു അത് ഒരു റിസോർട്ടിൽ വെച്ചാണ് നടന്നത് നമ്മുടെ ഇവിടെ കോട്ടയം കുമരകത്തുള്ള ഒരു റിസോർട്ടിൽ വെച്ചാണ് ഞങ്ങളത് എല്ലാവരും കൂടി നടത്തിയത് ഞങ്ങൾ ഒരു പന്ത്രണ്ട് പേർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളൊരു ഹോസ്റ്റലിൽ താമസിച്ച കൂട്ടുകാരായിരുന്നു ഞങ്ങൾ എല്ലാം കൂടി നീണ്ട ഒരു പത്ത് വർഷത്തെ ഇടവേളയ്ക്കു ശേഷമാണ് ഞങ്ങൾ വീണ്ടും എല്ലാവരും കൂടി കണ്ടുമുട്ടിയത് അപ്പം പലരും പല നാടുകളിലാണ് കണ്ണൂർ ഉള്ളവരുണ്ട് കോഴിക്കോട് ഉള്ളവരുണ്ട് ആ പല മറ്റു പല ജില്ലകളിലും ഉള്ളവരുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടി അതോടൊപ്പം തന്നെ കല്യാണം കഴിഞ്ഞ് അമേരിക്കയിലും യു കെയിലും ഒക്കെ സെറ്റിൽഡ് ആയിട്ടുള്ളവരും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാരുടെയും കൂടെ എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു ഡേറ്റ് നോക്കിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഓണത്തോട് അനുബന്ധിച്ച് ആണ് നമ്മൾ അത് പ്ലാൻ ചെയ്തത് കാരണം ഓണം ആകുമ്പം നാട്ടിലേക്ക് ഒരുമാതിരിപ്പെട്ട കേരളീയർ എല്ലാവരും നാട്ടിൽ തിരിച്ചെത്തുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഓണത്തോട് അനുബന്ധിച്ചാണ് ഇത് ഈ റീയൂണിയൻ പ്ലാൻ ചെയ്തിരുന്നത് അതിനു നേതൃത്വം ആയിട്ട് ഒരു ഒരാൾ അതിന് നേതൃത്വം ഏറ്റെടുത്തു ആ ആലപ്പുഴയിൽ ഉള്ളൊരു ഞങ്ങളുടെ ഒരു കൂട്ടുകാരിയാണ് അതിന് നേതൃത്വം ഏറ്റെടുത്തത് അവൾ അതെല്ലാം നന്നായിട്ട് ആസൂത്രണം ചെയ്തു അവൾ അവളുടെ ഹസ്ബൻഡിൻ്റെ സഹായത്തോടെ ആ റിസോർട്ട് ബുക്ക് ചെയ്യുകയും ഭക്ഷണം എല്ലാം ഓർഡർ ചെയ്യുകയും എല്ലാം ചെയ്തിരുന്നു ഒരു രാത്രി ഞങ്ങൾ അവിടെ എല്ലാവരും ആ റിസോർട്ടിൽ തങ്ങി എല്ലാവരും ഫാമിലിയായിട്ട് തന്നെയാണ് വന്നത് കുട്ടികൾ ഹസ്ബൻസും എല്ലാം ആയിട്ട് വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ ആ ഒരു ദിവസം പത്തു വർഷത്തിനുശേഷം ഞങ്ങളത് വളരെ അധികം ഞങ്ങൾ സന്തോഷിച്ച് ആ ഒരു രാത്രി ഞങ്ങൾക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമായിരുന്നു എല്ലാവരും കുട്ട് അങ്ങോട്ടുമിങ്ങോട്ടും എല്ലാം ഒരുപാട് നാളത്തെ കാര്യങ്ങൾ എല്ലാവർക്കും പറയാനുണ്ടായിരുന്നു കുട്ടികളാണെങ്കിലും കളിച്ചും ചിരിച്ചും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഈ പത്തു വർഷത്തെ പല കാര്യങ്ങൾ നടന്നു എല്ലാവരും കല്യാണത്തിന് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഒന്നും ഇല്ലായിരുന്നല്ലോ അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുമൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെ വളരെ അധികം സന്തോഷിച്ചു സഹോദരങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാം പറഞ്ഞ് എല്ലാവരും വളരെ സംതൃപ്തിയോടെ ഒരു ദിവസം തങ്ങി പിറ്റേ ദിവസം പിരിഞ്ഞു